ആ ചേട്ടാ വരൂ നമസ്കാരം കയറി ഇരിക്കൂ കയറി ഇരിക്കൂ ആ എന്താണ് ചേട്ടാ വന്നത് ആ ഹാ ഹാ ഓക്കെ ഓക്കെ ചേട്ടന് എത്ര ആളാണ് എത്ര ആൾക്കാണ് ഇവിടെ നിന്ന് ചേട്ടൻ ഒറ്റയ്ക്ക് ആണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ എത്ര ആളാണ് വരുന്നത് അതെ അല്ലേ അപ്പം ഏകദേശം എത്ര ആൾ ഉണ്ടാവും പത്ത് ആൾ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ ആണോ അതോ ജസ്റ്റ് സ്ഥലം മാത്രം കണ്ട് പോവാനാണോ ഉദ്ദേശിക്കുന്നത് ആ രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ഉണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെനിന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയിൽ തന്നെ അവിടെ ട്രാവലും ചെയ്യാം അവിടത്തെ കാര്യങ്ങൾ കാണാൻ ആയിട്ട് ഇവിടെനിന്ന് നമുക്ക് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് പോവാം അല്ലേ ഓക്കെ അപ്പം നമ്മളവിടെ ഇവിടെനിന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്ത് നിങ്ങൾ അവിടേക്ക് പോയി മൂന്ന് ദിവസം അവിടെ സ്റ്റേ അപ്പം മൂന്നാറും പിന്നെ എവിടെ ആയിരുന്നു ഇടുക്കി ആണല്ലേ ആ ഓക്കെ നിങ്ങൾക്ക് അവിടെ വല്ല പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എവിടേക്കാണ് പോവേണ്ടത് അങ്ങനെ എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ മനസ്സിൽ ഉണ്ടോ അതെ അല്ലേ ചേട്ടൻ്റെ കൂടെ ഫാമ് മക്കൾ എത്ര ആൾ ഉണ്ടാവും മുതിർന്ന ഒരു അഡൾട്ട്സ് എത്ര ആൾ ഉണ്ടാവും ഏകദേശം ആ ഓക്കെ ഓക്കെ അപ്പം കുട്ടികളായിട്ട് രണ്ട് മൂന്ന് പേരേ ഉള്ളൂ ഒരു ആ മൂന്നോ നാലോ പേരേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാം അഡൾട്ട് ആണല്ലേ ആ ഓക്കെ നമുക്ക് അപ്പം അവിടെ സ്റ്റേയ്ക്ക് ഏകദേശം ഒരു നാല് റൂം പറഞ്ഞാൽ മതിയാവുമോ പത്താളും കൂടെ അതോ കൂടുതൽ വേണോ അല്ല പോ ആ അപ്പോൾ ഒരു നമുക്ക് രണ്ട് ദിവസം ഇടുക്കിയിലും രണ്ട് ദിവസം മൂന്നാറും സ്റ്റേയ്ക്കുള്ള കാര്യങ്ങൾ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെനിന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്യാം പിന്നെ അവിടെ നമുക്ക് പോയിട്ട് കാണാൻ ഇത് ഇപ്പം അവിടെ വേണമെങ്കിൽ ഹിൽ സ്റ്റേഷൻ ഉണ്ട് പിന്നെ വ്യൂ പോയിന്റുകൾ ഉണ്ട് പിന്നെ ഡാമുകൾ അങ്ങനെ എല്ലാം കാണാം നമുക്ക് അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ അറേഞ്ച് സെറ്റ് ചെയ്തിട്ട് സാർക്ക് അയച്ച് തരാം ആ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് പാക്കേജിൽ വരുന്നത് ആയിരിക്കും നമുക്ക് ഏകദേശം ഇപ്പം ഒരു മുപ്പത്തിയെട്ട് നാല്പത്തിൻറെ ഉള്ളിലാണ് പാക്കേജ് വരുന്നത് അഞ്ച് ദിവസത്തെ ട്രിപ്പ് അല്ലേ പത്താൾക്ക് ആവുമ്പം മുപ്പത്തിയെട്ട് നാൽപത് എല്ലാം ആ വിത്ത് ജി എസ് ടി ബില്ലോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ അവിടെ നിങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യം ഇല്ല ഹോട്ടൽ അടക്കം എല്ലാം നമ്മൾ ബുക്ക് ചെയ്ത് തരും നമ്മൾ ഒരാൾ കൂടെ ഉണ്ടാവും ആ നമ്മുടെ ഗൈഡ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഫുൾ ടൈം ഉണ്ടാവും അവിടെ എ സി റൂം ആണ് എല്ലാവർക്കും രണ്ട് സ്ഥലത്തും എ സി റൂം ആയിരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടൽ തന്നെ ആണ് പ്രൊവൈഡ് ചെയ്യുക അവിടത്തെ ഡിഷസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് നേരത്തെ പറയണമെങ്കിൽ അങ്ങനെ അല്ലേ അത് പറഞ്ഞ് നമ്മള ഐറ്റ്നറിയിൽ ഉണ്ടാവും ഏകദേശം നിങ്ങൾക്ക് എങ്ങനെ ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് അനുസരിച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ് രാവിലെ പിന്നെ ആ പ്ലാൻ അതെ ഉണ്ട് ഉണ്ട്

അതിൽ ഇപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം ദോശ ഇഡ്ഡലി പുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ആണെങ്കിൽ ബിരിയാണി ചോറ് മീൽസ് വരുന്നുണ്ട് പിന്നെ ബിരിയാണി വരുന്നുണ്ട് അതുപോലെ പിന്നെ വൈകുന്നേരത്തേക്ക് ആണെങ്കിൽ ഡെസേർട്ട്സ് അടക്കം രണ്ട് മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട് അത് ഞാൻ അതിൻ്റെ ഫുൾ ഐറ്റ്നറി സാർക്ക് ഞാൻ കൊ വാട്ട്സാപ്പ് ചെയ്താൽ മതിയോ അപ്പം നിങ്ങൾ അത് ഡിസ്കസ് ചെയ്തിട്ട് അതൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കൺഫേം ചെയ്യാം അപ്പം നമുക്ക് ഇനീഷ്യൽ ആയിട്ട് ഒരു ടെൻ തൗസൻഡ് ആണ് നമുക്ക് ഇപ്പം പേ ചെയ്യേണ്ടത് ബാക്കി നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് മൊത്തം എമൗണ്ട് ട്രിപ്പ് കഴിയുന്ന സമയത്ത് പേ ചെയ്താൽ മതി ആ അതെ നമുക്ക് അവിടെ ബുക്കിംഗ് കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു എമൗണ്ട് നമ്മൾ ചോദിക്കുന്നത് ഓ സാറിന് ഇനി ഇപ്പം വേറെ ഏതെങ്കിലും പാക്കേജ് എടുക്കാൻ താൽപര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ രണ്ട് മൂന്ന് ആൾക്കാർ ഉണ്ട് അവിടെ നോക്കിയിട്ട് എടുത്താൽ മതി ഇവിടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും ഇപ്പം നമ്മുടെ ഏരിയയിൽ തന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാർക്ക് ഇനി വേറെ എവിടെ എങ്കിലും പോയി അന്വേഷിച്ചിട്ട് വരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് പ്രശ്നം ഒന്നും ഇല്ല വേറെ എവിടെ എങ്കിലും അന്വേഷിക്കാൻ പോവുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇതിലും ബെസ്റ്റ് ആയിട്ട് സാർക്ക് കിട്ടുമെന്ന് തോന്നാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം നമുക്ക് പ്രഷ് പ്രശ്നം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം സാർ നമുക്ക് എന്നാൽ അതൊരു എന്നൊക്കെ ആണ് സാർക്ക് പോവേണ്ടത് അതിന് അനുസരിച്ച് നമുക്ക് ബുക്കിംഗ് എടുക്കാമായിരുന്നു ആ ഓക്കെ അപ്പം പതിനഞ്ചാം തീയതി അല്ലേ പത്ത് രണ്ട് ആ വീക്കെൻഡ് വരുന്ന രീതിയിൽ നമുക്ക് പോവാം സാറെ പതിനഞ്ചാം തീയതി എന്ന് പറയുന്നത് ബുധനാഴ്ച്ച ആണല്ലോ അപ്പം നമുക്ക് പതിനാറ് പതിനേഴ് ആ പതിനേഴാം തീയതി പതിനാറാം ആ പതിനേഴാം തീയതി ഇവിടെ നിന്ന് പോകുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ സാറേ പിന്നെ ഫുൾ അത് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് സാർക്ക് വാട്ട്സ്ആപ്പ് ചെയ്തുതരാം അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ചാർജസ് ഉൾപ്പെടുത്തി സാർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് വാട്ട്സ്ആപ്പ് ചെയ്തുതരാം സാറേ നമ്പറും ഡീറ്റെയിൽസും അതുപോലെ ഇനീഷ്യൽ പേയ്മെൻറ്റും ഒന്ന് സാർ കൗണ്ടറിൽ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇവിടെ നിന്ന് വിളിച്ച് പറയാം ഓക്കെ സാർ ഓക്കെ സാർ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ